വാർത്താമാധ്യമങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങളെകുറിച്ച് മതിയായി കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം എല്ലാ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മാധ്യമപ്രവർത്തകർ വന്ന് അന്വേഷിക്കുകയും അത് നേരിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടതായിട്ട് ഞാൻ കരുതുന്നു എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒരേ തുല്യ ഒരു ഈക്വലായിട്ടുള്ളവരാണ് അവരെല്ലാരെയും ട്രീറ്റ് ചെയ്യുന്നത് കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും അവർക്ക് പരിഹാരങ്ങൾ നൽകി എല്ലാ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അതെന്താണെന്ന് അറി എല്ലാം പുറംലോകം അറിയികയും ചെയ്യുന്നു ഒന്നും ഒരു കാര്യംതന്നെ അറിയാതെ പോകുന്നുണ്ട് പോവുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാകാര്യങ്ങളും തന്നെ മാധ്യമങ്ങളിലൂടെ എല്ലാ ആൾക്കാരും അറിയുന്നും ഉണ്ട് അതിന് പരിഹാരങ്ങളും നമ്മള് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു